എൻ്റെ നാട്ടിൽ എല്ലാ ഞായറാഴ്ചകളിലുമാണ് ചന്ത ചന്തയെന്ന് പറയുമ്പോൾ എന്താ ഒത്തിരി പച്ചക്കറികൾ പച്ചക്കറികളായിട്ട് ഒത്തിരി ആൾക്കാർ ഓരോരോ സ്ഥലങ്ങളിൽ ദിശയിലൊക്കെ ഇരുന്ന് ആ വിൽക്കും പിന്നെ ചന്തയിൽ പച്ചക്കറികൾ കാണും തേങ്ങാ അതുപോലെയുള്ള കപ്പ പിന്നെ പലവ്യഞ്ജന സാധനങ്ങൾ പിന്നെ ചെറിയ സ്റ്റേഷനറി കടപോലെ വള മാല ചാന്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടും പിന്നെ കുറച്ചപ്പുറത്ത് പച്ചമീൻ പിന്നെ തൊട്ടപ്പുറത്ത് ഇറച്ചി വെട്ട് അങ്ങനെയൊക്കെ വിഭവമായിട്ട് നമ്മളെ ഞങ്ങളുടെ ചന്തയിലോട്ടിറങ്ങുമ്പോൾ തന്നെ അടുത്തടുത്തടുത്ത് ഇങ്ങനെ ആൾക്കാർ ഇരുന്ന് കച്ചവടം ചെയ്യും ഇവിടെ വന്ന് വാങ്ങ് ഇവിടെ വിലക്കുറവാണ് അപ്പുറത്ത് അങ്ങനെയൊക്കെ കൂടുതലും തമിഴ്ക്കാരാണ് കച്ചവടം ചെയ്യുന്നത് അത് ഭയങ്കര രസമാണ് ചന്തേ പോകാമെന്ന് പറയുമ്പം തന്നെ ഒരു വലിയ നമുക്ക് എന്താ ഒരു രസമാണ് അത് ഒരിടത്ത് നിന്ന് ഇച്ചിരിച്ചിരി സാധനം വാങ്ങുന്നു അടുത്തടുത്തു നിന്നു വാങ്ങുന്നു അങ്ങനെ ഭയങ്കര രസമാണ് അപ്പം പിന്നെ അതിനൊക്കെ ശേഷം കൊറോണ വന്നതിന് ശേഷം ചന്തയൊക്കെ അടച്ചു പൂട്ടുക ആയിരുന്നല്ലോ അതിന് ശേ ഇപ്പം അത് പുതിയതായിട്ട് വന്നപ്പോൾ പഴയ ഒരു ഓളം ഇല്ല എന്നാലും അത്യാവശ്യം ഉണ്ട് പൂർണ്ണമായിട്ടും ഇപ്പം മേലെ തൊട്ട് താഴെ വരെ ഇങ്ങനെ ചന്തയായിരുന്നു ഇപ്പം അത്രയും ഇല്ല പകുതി സ്ഥലം വരെ ചന്തയുള്ളു പിന്നെ എല്ലാം ചന്തയിൽ ഇപ്പുറത്ത് ചെറിയ ചെറിയ കടകളിലൊക്കെയാണ് എന്താ ബേക്കറി ഐറ്റംസും ഫ്രൂട്ട്സും പലചരക്ക് സാധങ്ങളും പച്ചക്കറി മീറ്റ് ഇതെല്ലം വേറെ വേറെ കടകളിലോട്ടൊക്കെ മാറി ഇപ്പം ചന്തയെന്ന് പറയുമ്പം കുറച്ചു സാധനങ്ങളൊക്കെ ഇപ്പം എല്ലാവരും കച്ചവടം ചെയ്യുന്നുള്ളൂ പിന്നെ എന്നാലും കൂടുതലൊട്ടും മറ്റേ എന്താ പറയുക ഡ്രെസ്സുകളില്ലേ കുറഞ്ഞ വിലക്ക് കുഞ്ഞുങ്ങളുടെ വലിയവരുടെ ആ അതൊക്കെ ഉണ്ട് മാർക്കറ്റെന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ പെട്ടെന്ന് എന്താ അവിടെ പോയെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പോയി സാധനമൊക്കെ അവിടെപ്പോയി വാങ്ങാൻ അമ്മയൊക്കെ ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെ പോകുമ്പോൾ ഞാനും കൂടി പോകും പിന്നെ ചില സ്ഥലങ്ങളിൽ ശനിയാഴ്ച്ച ചന്ത പിന്നെ മെയ്നായിട്ടും നാട്ടുമ്പുറത്താണ് ചന്ത ചന്തയെന്ന് അങ്ങനെ അല്ല അതായത് ഞങ്ങളുടെ അവിടെ പ്രത്യേകിച്ച് ഞായറാഴ്ച്ചയാണ് എല്ലാവരും സാധനങ്ങളൊക്കെവാങ്ങാൻ പോകുന്നത് പിന്നെ മിക്ക സ്ഥലങ്ങളിലും വേറെ സ്ഥലങ്ങളൊക്കെ നോക്കുമ്പോൾ അവിടെ അങ്ങനെ ഞായറാഴ്ച ചന്തയില്ല ചില സ്ഥലങ്ങളിൽ ഞായറാഴ്ച് അവധിയാണ് കടകളൊന്നും ഇല്ല തിങ്കളാ അപ്പം ഞായറാഴ്ച് ഞങ്ങളുടെ സ്ഥലത്ത് ചന്തയാണ് തിങ്കളാഴ്ച ചന്തയൊന്നും ഇല്ല കടകൾ മിക്കതും അവധിയായിരിക്കും അങ്ങനെയൊക്കെ അത് ചന്തക്ക് പോകുകയെന്ന് പറയുമ്പോൾ തന്നെ ഒരു വലിയ നമുക്കെന്നാൽ എന്തൊക്കെ സാധനങ്ങളാണെന്ന് ഇപ്പം ഇവിടെയൊക്കെ കൂടുതലും ഏലത്തോട്ടത്തിൽ പണിയുന്ന ആൾക്കാരാണ് അപ്പോൾ അവരൊക്കേ ശനിയാഴ്ച് വരെ പണിതാൽ വൈകീട്ട് പണിക്കൂലിയൊക്കെ വാങ്ങിച്ച് ഞായറാഴ്ച് രാവിലെ ഇപ്പം കാപ്പിയെന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും ചിലർ കാപ്പിയൊന്നും ഉണ്ടാക്കില്ല പത്ത് മണിയാകുമ്പം തന്നെ ചന്തക്ക് പോകാനൊക്കെ റെഡിയായി ബിഗ്ഷോപ്പറൊക്കെ ആയിട്ട് പോകും തിരിച്ച് വരുമ്പം ഒരു ബിഗ്ഷോപ്പർ നിറച്ച് സാധനങ്ങളാണ് വരുമ്പോൾ അയ്യോ ഇന്നയിടത്ത് അത്ര വിലയായി ഇത്ര വിലയായി ഇപ്പം പഴയ പോലെയല്ല സാധനങ്ങൾക്ക് വില കൂടി ചിലപ്പോൾ ബീഫോ മീനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്പെഷൽ വാങ്ങും കപ്പ അങ്ങനെ അതൊക്കെ കൊണ്ട് വന്ന് ഒരിക്കലും വെക്കൽ ഒരു ബഹളമാണ് എന്നിട്ട് ഉച്ചയാകുമ്പോഴത്തേക്ക് ഇതെല്ലാം റെഡിയായി കഴിക്കുമ്പം തന്നെ ഒരു രസമാണ് എല്ലാവരും കൂടെ കൂടി ചേർന്ന് ഇപ്പം എൻ്റെ വീട്ടിൽ ആണെങ്കിൽ പൊതുവെ എല്ലാവരും ജോലിക്കൊക്കെ പോകുന്നവരും പണിക്ക് പോകുന്ന അങ്ങനെയൊക്കെയാണ് അപ്പം ഞായറാഴ്ച് എല്ലാവരും വീട്ടിൽക്കാണും ചിലപ്പം ഞങ്ങൾ എവിടെയെങ്കിലുമൊക്കെ പോകും അല്ലെങ്കിൽ വീട്ടിലുള്ളപ്പോൾ എല്ലാവരും കൂടി ചേർന്ന് ആഹാരമൊക്കെ ഉണ്ടാക്കി കഴിച്ച് സെറ്റപ്പാണ് നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരിതാണ് ചന്തക്ക് പോകുകയെന്നുള്ളത്